ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് സ്ഥിതിചെയ്യുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽനിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഐക്യ കേരളത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഒരു സംസ്ഥാന പുനഃസംഘടനാ നിയമം അതിൻ്റെ ഭാഗമായിട്ട് അത് പല സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കുകയും വിഭജിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ നമ്മുടെ ഇന്ത്യാ ഗവൺമെൻ്റ് ഭാഷാടിസ്ഥാനത്തിൽ അതായത് ഒരു ഭാഷ സംസാരിക്കുന്ന എല്ലാവരും ഒരു സംസ്ഥാനത്തിൽ ഇരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിന് കേരളമെന്ന നമ്മുടെ കൊച്ച് സംസ്ഥാനം രൂപീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നും നവംബർ ഒന്ന് കേരളപ്പിറവിയായിട്ട് ആഘോഷിച്ച് പോരുവാണ് കേരളത്തിൻ്റെ സംസ്കാരമെന്ന് പറയുമ്പഴ് പണ്ട് മുതലേയുള്ള പുരാതനമായും ആര്യ ദ്രാവിഡ സംസ്കാരങ്ങളുടെ ഒരു കൂട്ടായ കൂട്ടായ്മയാണ് അതായത് മിശ്രിതാണ് നമ്മുടെ സംസ്കാരമെന്ന് പറയാം നമുക്ക് പിന്നെ എന്താണ് നമ്മളുടെ കല സംഗീതം നൃത്തം സാഹിത്യം പാചകരീതി എന്നിവയ്ക്ക് ഒക്കെ സമ്പന്നമായ പാരമ്പര്യങ്ങൾക്ക് പേര് കേട്ടാണ് നമ്മുടെ കേരളമെന്ന് പറയുന്നത് അതായത് നമ്മളെ ഇന്ത്യ ബ്രിട്ടീഷ്കാരിൽനിന്ന് സ്വതന്ത്ര്യം നേടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൊച്ച് കേരളം പല പല നാട്ട് രാജാക്കന്മാരുടെ കീഴിലുള്ള നാട്ടുരാജ്യമായിരുന്ന ഒരു കേരളം അതായത് പല വിവിധ രാജാക്കന്മാരുടെ കീഴിലുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു നമ്മുടെ കേരളം എന്നു പറയുന്നത് അപ്പം രാജാക്കന്മാരുടെ കീഴിൽ എന്ന് പറയുമ്പം തന്നെ നമുക്ക് അറിയാം അവരുടെ രാജ കൊട്ടാരത്തിന് സദസ്സില് പാട്ട് കല സാഹിത്യം അതൊക്കെ ഒക്കെ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് നാടൻ കലകളും അനുഷ്ടാന കലകളും ക്ഷേത്ര കലകളൊക്കെ തുടങ്ങി ആധുനിക ആ കലാരൂപങ്ങളൊക്കെ വരെ നമുക്ക് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പഴ് ആയിക്കോട്ടെ ആധുനിക കലാരൂപങ്ങൾ കൂടി വന്നിട്ടുണ്ട് പണ്ട് മുതൽക്കേ ഈ കലകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നമുക്ക് ഉണ്ടായിരുന്നു സ്വാതി തിരുനാൾ മഹാരാജാവ് ആയിക്കോട്ടെ അങ്ങനെ നിരവധി ആളുകളൊക്കെ നമുക്ക് അതിന് ഓരോ ഉദാഹരണങ്ങളാണ് പിന്നെ നമ്മളുടെ ഇത് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കേരളം അതിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അത് നേടുവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ അങ്ങനെയുള്ള നിരവധി ആളുകളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ നമ്മുടെ കേരളത്തെ ആക്കി തീർക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ കേരളത്തിൻ്റെ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് കാണുന്ന സമ്പന്നതയിലേക്ക് സംസ്കാര സമ്പന്നതയിലേക്ക് നയിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയത് സ്വായത്തമാക്കിയത് ഈ പറഞ്ഞ ചുരുക്കം ചുരുക്കം പേര് പേരുകളെ ഞാൻ പറഞ്ഞുള്ളൂ എനിക്ക് ഓർമയിൽ അങ്ങനെ കിട്ടുന്നില്ലെങ്കിലും അതിലേറെ ആളുകൾ ഒത്തിരി ആളുകളുടെ ശ്രമമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സംസ്കാര സമ്പന്നമായ കേരളം രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് നമ്മുടെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ പ്രധാന സാംസ്കാരിക ഒരു പരിപാടിയാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് നമ്മുടെ ഓണം ഓണം എന്നു പറയുമ്പോൾ ഒരു വിഭാഗത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ജാതിമതഭേദമന്യേ എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണം എന്ന് പറയുന്നത് അത് കർഷക ആ ഏത് ഇതിലും നമുക്ക് അത് നമ്മുടെ സംസ്കാര സമ്പന്നതയെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ പറയേണ്ടത് കലാരൂപങ്ങൾ നമ്മുടെ എന്തരാണ് പ്രാദേശിക കലാരൂപമായ കൂടിയാട്ടം മുതൽ കഥകളി മോഹിനിയാട്ടം തെയ്യം കളരിപ്പയറ്റ് ഇവയൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഘടകങ്ങളാണ് കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിലെ ഇസ്ലാം സമൂഹത്തിൻ്റെ കലാ രൂപമാണ് ഒപ്പന എന്ന് പറയുന്നത് പിന്നെ സെൻ്റ് തോമസ് ക്രിസ്ത്യാനികളുടെ പ്രാചീന കലാരൂപമായ മാർഗംകളി ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ കലാ സാംസ്കാരത്തെയും ഒക്കെ ഉയർത്തിക്കാട്ടുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പം നമ്മുടെ കൊച്ചു കേരളത്തെ ഇതുപോലെ സംസ്കാര സമ്പന്നമാക്കാനായിട്ട് നിരവധി ആളുകൾ വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന സംസ്കാര സമ്പന്നമായ നമ്മളുടെ കേരളം രൂപീകൃതമായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്